എ ടു ഇസഡ് ഓട്ടോമൊബൈൽസാണ് ആരാണ് സംസാരിക്കുന്നത്

ആണോ കാർ ഏതായിരുന്നു എപ്പോൾ മേടിച്ച കാറാണ് ഏതു വർഷം രണ്ടായിരത്തിപ്പത്തൊമ്പത് സർവീസൊക്കെ കറക്ടാണോ ചെയ്തത് സർവീസെല്ലാം കറക്ടാണോ ചെയ്തത് അത് എക്സ്ഹോസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണോ കേൾക്കുന്നത് അത് പുറകിൽ നിന്നാണോ ഫ്രണ്ടിൽ നിന്നാണോ കേൾക്കുന്നത് സൗണ്ട്

നിങ്ങളെന്നാൽ നാളെ ഞങ്ങളുടെ ഷോറൂമിലേക്ക് വന്നാൽ നോക്കി പണിയാമായിരുന്നു ഷോറൂം ഇടപ്പള്ളിയിലാണ് വരുന്നത് ഇല്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് വരണോ

താങ്കളെന്നാൽ ആ എൻജിൻ കിറ്റൊന്ന് എടുത്ത് നോക്കുമോ എന്താ പ്രശ്നം എന്ന് ഐ മീൻ എഞ്ചിൻ്റെ അവിടെ എന്തെങ്കിലും പ്രോബ്ലമുണ്ടൊ നോക്കുമോ

അത്രയും അത്രയും പണിയുള്ള കാറ് ആർക്കെങ്കിലും കൊടുക്കാമോ

അപ്പോൾ അത് ആ ഓക്കെ നിങ്ങളെന്നാൽ ഞങ്ങൾ നാളെ ആളെ വിടാം പിന്നെ വേറെ ഏതെങ്കിലും വണ്ടി നന്നാക്കാനുണ്ടോ ഓ ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട് ഞങ്ങളെല്ലാ സേവനവും ചെയ്യും അതാണ് ഞങ്ങളെ നമ്പർ വൺ ആക്കിയത് ഓക്കെ നിങ്ങളുടെ അഡ്രെസ്സ് പറഞ്ഞു തന്നാൽ മതി ഞങ്ങൾ അങ്ങാട്ട് വന്നേക്കാം ആ പറഞ്ഞോളു

കാഞ്ഞിരത്തിങ്കൽ ഹൗസ് പനവല്ലി ഈ പനവല്ലി എവിടെയായിട്ട് വരും ഇടപ്പള്ളിയുടെ അടുത്തായിട്ട് വരും ഞാൻ കേട്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു സ്ഥലം മാഡം നിങ്ങളുടെ ഈ നമ്പറിലാണോ വാട്സാപ്പ് എന്നാൽ ഒന്ന് ലൊക്കേഷൻ അയച്ചിട്ടേക്ക് ഓക്കെ ഞങ്ങൾ നാളെ എത്തിയേക്കാം ഓക്കെ ടാങ്ക് യു